ഹലോ ചോപ്സി റെസ്റ്റോറന്റ് അല്ലേ ആ ഞാന് നിങ്ങളുടെ അവിടെ നിന്ന് ഒരു കസ്റ്റമർ ആണേ ഞാനാണെങ്കിൽ ഇന്ന് ഉച്ച് ഉച്ചയ്ക്കത്തേക്ക് അവിടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി ഓഡർ ചെയ്തു പക്ഷേ എനിക്ക് കിട്ടിയത് മട്ടന് ഞാൻ ഒന്നാമത്തെ കാര്യം ചോദിക്കുന്ന സാധനം തരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് പൈസ തരുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരുമാതിരി കസ്റ്റമേഴ്സിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ ഇങ്ങനെ ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കു വലിയ കഷ്ടപ്പാടായിരിക്കും ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് ഓരോന്ന് ഓർഡർ ചെയ്തുതരുമ്പോഴത്തേക്കും നിങ്ങൾ ഞങ്ങൾക്ക് എന്തും തരാം പൈസ എന്തായാലും വാങ്ങുന്നതല്ലേ എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് എന്തും തരാം എന്ന് ഇതിലാണ് നിങ്ങൾ നിൽക്കുന്നത് പിന്നെ ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യാന് വന്ന ബോയ്

പത്തു മണിക്ക് നമ്മൾ വിശന്ന് വിശന്നിരുക്കുമ്പോഴായിരിക്കും ഓഡർ ചെയ്യുന്നത് അതു പന്ത്രണ്ടു മണിക്ക് കൊണ്ടു തന്നാൽ നമുക്ക് രണ്ടിനും ഒരു പ്രയോജനം ഇല്ലാത്തതായി പോകും എന്റെ പൈസ വെറുതേ പോകുന്ന പോലെ തോന്നും പിന്നെ നിങ്ങൾ തരുന്നത് നല്ല മനസ്സോടെ തരണം അല്ലാതെ ഒരു കടമയായിട്ടു ചെയ്യരുത് വിശക്കുന്നവന് ഫുഡ് കൊടുക്കുക എന്നു പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പം അവർ പറയുന്ന ഫുഡ് കൊടുക്കുമ്പോഴാണ് അവർ നിങ്ങൾക്കു പൈസ തരുന്നത് അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന ഫുഡ് കൊടുത്തു വിട്ടിട്ട് നിങ്ങൾ പൈസ വേണമെന്നു പറഞ്ഞാൽ അതെവിടുത്തെ ന്യായമാണ് അതുപോലെ തന്നെ ഇനിയും ഒരു ഒരിക്കലും ഇങ്ങനെ ഒരു ഇതിനെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാന് പാടില്ല അങ്ങനെ ഉണ്ടായാല് ഞാന് കംപ്ലെയിന്റ് ചെയ്യും കേട്ടല്ലോ